ഹലോ ആ പറയൂ നമസ്കാരം എന്തൊക്കെയാണ് വേണ്ടത്

ആ പുതിയ വീട്ടിലേക്കാണല്ലോ ഓ ചോദിക്ക് സാറിൻ്റെ വീടെവിടെയാണ് ആ പാലക്കാട് അല്ലേ നമുക്ക് സാറിന് എങ്ങനത്തെ എത്രയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഓരോ ഐറ്റവും മിഡ് റേഞ്ചില്ലേ അപ്പം നമുക്ക് ഫസ്റ്റ് ആദ്യം നമുക്ക് ടീ വി നോക്കാം ടീ വി വേണ്ടേ ആ ടീ വി എത്ര ഇഞ്ചിൻ്റെയാണ് വേണ്ടത് അമ്പതാണോ അങ്ങനെ എത്രയാണ് അമ്പതിഞ്ചിൻ്റെ ഒരു ടീ വി വരുമ്പോൾ നമുക്ക് ഏകദേശം കോസ്റ്റ് ഒരു ഇരുപത്തേഴായിരത്തിൻ്റെയൊക്കെ നല്ലതുണ്ട് അതു മതിയല്ലേ കമ്പനി സാംസങ്ങ് അതിപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് പിന്നേ അതേമാതിരി തന്നെ ഇപ്പോൾ ഓഫറ് കിടക്കണത് വാഷിംഗ് മെഷീൻ കിടക്കണുണ്ട് അത് ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സെമി വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക്ക് നമുക്കൊരു പത്തൊൻപതിനായിരം രൂപ വരും ഏ സി നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് അല്ലെങ്കിൽ ഒരു രൂപ വച്ചുള്ള ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട് അതോ ഫുൾ ക്യാഷ് കൊടുത്തൊരു സാറിന് ഏതു കമ്പനിയുടെയാണ് വേണ്ടത് ലോയ്ഡിൻ്റെ പുതിയ ഏ സി വന്നിട്ടുണ്ട് അതിന് പ്രൈസ് ഏകദേശം ഒരു ഒരു എഴുപതിനായിരം രൂപ വരും നമുക്ക് അതിന് കറണ്ട് അധികം വലിക്കില്ല അങ്ങനത്തെ ഒരെണ്ണം വന്നിട്ടുണ്ട് സാറിന് എത്ര ഏ സി വേണ്ടി വരും പുതിയ വീട്ടിലേക്ക് രണ്ട് മൂന്നെണ്ണം അല്ലേ രണ്ടെണ്ണം അല്ലേ ഓക്കെ ഓക്കെ നമുക്കത് നോക്കാം പിന്നെ അതേമാതിരി തന്നെ ഫ്രിഡ്ജ് എങ്ങനത്തെയാണ് വേണ്ടത് സിംഗിൾ ഡോറ് വേണോ ഡബിൾ ഡോറ് വേണോ ഡബിൾ ഡോർ ആ ഓക്കെ ഓക്കെ നമുക്ക് അതിനൊരു പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു ഒന്ന് കാൽ ലക്ഷമൊക്കെ വരും ആ പിന്നേ നമുക്ക് അതേമാതിരി തന്നെ ആ അല്ല നമുക്ക് ഇത് അവിടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു തരാം നമുക്ക് അതു ചില പ്രൊഡക്ട് മാത്രം ഫ്രീയാണ് ചിലതിന് നമുക്ക് പണിയുടെ പൈസ വരും അതിപ്പോൾ സാറ് അഫോഡ് ചെയ്യേണ്ടി വരും ആ പിന്നെയെന്നു പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചെടുക്കണ കാരണം നമ്മൾ ആതിൻ്റേതായ ഓഫറും കാര്യങ്ങളൊക്കെ തരാം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം സാറൊരു ദിവസം നമ്മുടെ ഓഫീസ് നമ്മുടെ ഷോപ്പിലേക്ക് വരണുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാമാണ് വേഗം പറഞ്ഞു നമുക്ക് ഒരു വൺ വീക്കിനുള്ളിലേക്ക് ഒക്കെ സെറ്റ് ആക്കിത്തരാം ഓക്കെ താങ്ക് യു താങ്ക് യു